ഞാൻ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് എൻ്റെ മതം ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അതായത് ആത്മീയ ചിന്തകളും ആത്മീയ പ്രവർത്തനങ്ങളും സ് നമുക്ക് സമാധാനം ലഭിക്കുന്നതിനോട് ഏറെ ഉപകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥന പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണം എന്നാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത് ആ ദൈവവുമായിട്ടുള്ള ഇടപെടലെന്ന് പറയുന്നതുതന്നെ മാനസികമായ ഒരു സംതൃപ്തി നമുക്ക് നൽകുന്നുണ്ട് ആ മാനസികമായ സംതൃപ്തി ആരോഗ്യത്തിനും ഗുണകരമാവുന്നു എന്നുള്ളൊരു സംശയമൊന്നുമില്ല അതുപോലെ തന്നെ ദേവാലയത്തിൽ ആത്മീയ കാര്യങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ വിശുദ്ധ കുർബാന അതുപോലെ മറ്റ് കൂതാശ അനുകരണങ്ങൾ ഒക്കെ ആത്മീയമായ സംതൃപ്തി അതുവഴി ആരോഗ്യവും പ്രദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം നമ്മുടെ പാപകരമായ സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പം മറ്റുള്ളവരുമായി അകൽച്ച അതാണ് പാപത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മ വ്യക്തികളോടുള്ള അകൽച്ച അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു അകൽച്ച പാപത്തിലൂടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനെ മാറ്റി എടുക്കുന്നതിനുള്ള ഒത്തിരി ഉപാധികൾ മതം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വ്യക്തികളുമായി അനുരഞ്ജനത്തിനുളള സാധ്യത അതിലൂടെ ദൈവവുമായിട്ടുള്ള അനുരഞ്ജനത്തിനുളള സാധ്യതയും നമുക്ക് നമ്മുടെ മതം പ്രദാനം ചെയ്യുന്ന പല സംവിധാനങ്ങളിലൂടെയും ലഭ്യമാവുന്നുണ്ട് അപ്പോൾ അതുതന്നെ അങ്ങനെ ആ അനുരഞ്ജനം സാധ്യമാവുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അകൽച്ച മാറ്റി വയ്ക്കാനും സാധിക്കുമ്പോൾ അത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വളരെയധികം കാരണമാവുന്നുണ്ട് ഇതുതന്നെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരും ആയിട്ട് അകൽച്ചയിലേക്ക് വരികയും മറ്റുള്ളവരെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മതത്തെ തന്നെ സ്നേഹിക്കുവാൻ അതിൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ജീവിക്കാനുള്ളൊരു അവസ്ഥ വിം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മതം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പം അതിലൂടെ തീർച്ചയായിട്ടും മാനസികമായ ഒരു കരുത്ത് സ്വീകരിക്കുന്നതോടൊപ്പം മനുഷ്യൻ്റെ ആരോഗ്യത്തിനും അത് വളരെ പ്രയോജനകരമാവും എന്നുള്ളതിൽ സംശയമില്ല കാരണം മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള അകൽച്ചയാണ് പല രോഗങ്ങൾക്കും കാരണമെന്ന് മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാനസികമായ ഒരു ഉല്ലാസം എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണല്ലോ ഉണ്ടാവുന്നത് അപ്പോൾ അതിന് ഞാൻ വിശ്വസിക്കുന്ന മതം സഹായമാവുന്നുണ്ട് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്